ഹലോ ഇത് റസ്റ്റോറൻ്റല്ലേ ആ ഓക്കേ ഞാൻ കുറച്ചു മുമ്പ് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതില് ഓൺലൈൻ വഴി ഇതാക്കി പേ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട് ആ അതേ നമുക്കിങ്ങനെ കിഴിവ് അതായത് നെക്സ്റ്റ് ഇതില് നമുക്ക് തേർട്ടി പേഴ്സൻ്റേജ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഓക്കേ അപ്പോൾ നമ്മളിനി ഫുഡ് ഓർഡർ ചെയ്താൽ അത് നമുക്ക് ഡയറക്ട് ആയിട്ട് കിട്ടുവോ അതോ നമ്മള് അവിടെ പേ ചെയ്ത് ഇതാക്കിയിട്ടാണോ അതോ നമ്മള് ഡയറക്റ്റ് പേ ചെയ്യണോ ഹോട്ടലിൽ വന്നു കഴിക്കുമ്പോഴാണോ നമുക്കതിൻ്റെ ഇത് കിട്ടുക ഓക്കേ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലല്ലെ ആ അങ്ങനെയാണെങ്കിൽ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയിട്ട് നിങ്ങളെ വിളിക്കാം അപ്പം അതെങ്ങനാന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചത് എന്നേയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ചു കഴിയുമ്പോൾ വീട്ടില് എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ വിളിക്കാം നിങ്ങളെ അപ്പോൾ ഓർഡർ ചെയ്യുന്ന എനിക്ക് കാർഡിൻ്റെ ഇത് പറഞ്ഞ് നമ്പറ് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങളതിനനുസരിച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് പറഞ്ഞാൽ മതി ആ അതുകഴിഞ്ഞിട്ട് ഞാൻ പേ ചെയ്തോളാം ആ ഓക്കേ ഓക്കേ എന്തായാലും നിങ്ങള് നോക്കിയിട്ട് നമ്പറ് ഞാൻ പറഞ്ഞു തരാം നിങ്ങള് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അത് കുറച്ച് തന്നാൽ മതി ആയിക്കോട്ടെ ഓക്കേ ശരി എന്നാൽ